ഇപ്പോൾ വയനാട് ജില്ലയിലെ മെയിൻ ഗതാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് മാർഗ്ഗമുള്ള ഗതാഗതമാണ് ഉള്ളത് നമുക്ക് റെയിൽവേ വിമാന താവളങ്ങൾ ഒന്നുമില്ല നമുക്ക് പിന്നെ പൊതു ഗതാഗതങ്ങൾ ഒക്കെ ഉണ്ട് അതായത് നമുക്ക് ഇപ്പം മൈസൂറക്കക്കെ പോകാൻ വേണ്ടിട്ടു നമുക്ക് ട്രെ ട്രെയിനോ വിമാനത്താവളോ അങ്ങനെ വിമാനങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റോഡ് റോഡ് മാർഗമുള്ളൂ ബസ് മുഖേനെ അല്ലെങ്കിൽ വണ്ടി മുഖേനെക്കെ പോവുക അതുമാത്രമേ ഉള്ളൂ സാധാരണകാരാണെങ്കിലും ഇപ്പം വലിയ വലിയ ആൾക്കാരാണെങ്കിലും റോഡ് മുഖേനെയുള്ള യാത്രയാണ് യൂസ് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വിമാനത്താവളങ്ങളോ വിമാനം ഇറങ്ങാനുള്ള ഒരു സൗകര്യമോ ഒന്നുമില്ല പിന്നെ റെയിൽവേ അങ്ങനത്തെ സംഭവം ഒന്നും നമ്മുടെ വയനാട്ടിൽ ഇതുവരെ വന്നട്ടില്ല ഇനി വരുമോന്നൊന്നും അറിയില്ല പക്ഷേ പലതിലും അതായത് ഇപ്പം നമുക്കിപ്പം കൂടുതലായിട്ടും കെ എസ് ആർ ടി സി ബസ്സാണ് മൈസൂരും പുറമേക്കൊക്കെ ഓടുന്നത് മൈസൂര് ബാംഗ്ലൂര് ആ ഭാഗത്തേക്കും തമിഴ്നാട്ടിലെക്കൊക്കെ കെ എസ് ആർ ടി സി ബസ്സുകളും പിന്നെ അല്ലാത്ത ബസ്സുകളൊക്കെ ഉണ്ട് അതായത് ഇപ്പം നമുക്ക് സ്ലീപ്പിങ് ആയിട്ട് കിടന്നിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കുറെ ബസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കിപ്പോൾ പലതരം ഇപ്പോൾ അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്താവളം ഒക്കെ ഉള്ളത് കണ്ണൂരും കോഴിക്കോടൊക്കെയാണ് മെയിനായിട്ട് ഉള്ളത്